എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമായ എഴുത്തുകാരൻ എന്നു പറയുന്നത് മുഹമ്മദ് ബഷീർ സാറാണ് സാറിൻ്റെ എഴുത്തുകൾ അല്ലെങ്കിൽ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാല്യകാലസഖി പാത്തുമ്മയുടെ ആട് മതിലുകൾ ആടുജീവിതം പ്രേമലേഖനം എന്നിവയൊക്കെയാണ് ഇതിൽ ഞാൻ വായിച്ചിട്ടുള്ളത് ആടുജീവിതം മതിലുകൾ പാത്തുമ്മയുടെ ആട് ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുള്ള നോവലുകളാണ് അതുപോലെ ബാല്യകാലസഖി ഞാൻ അടുത്തതായി വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നോവലാണ് ഇതിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ നോവൽ അല്ലെങ്കിൽ കഥ ഏതാണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആടു ജീവിതമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ച് വായിച്ചപ്പോൾ എനിക്ക് എന്നെ അത് വല്ലാണ്ട് അത് സ്വാധീ സ്വാധീനിച്ചിട്ടുണ്ട് ഈ ആട് ജീവിതമെന്നു പറയുന്നത് കാരണം എനിക്ക് യഥാർത്ഥത്തിലുള്ള കഥകൾ കേൾക്കാനും യഥാർത്ഥത്തിൽ നടന്ന കഥകൾ കേൾക്കാനും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസ് ഓരോ പാഠങ്ങൾ അത് മനസ്സിലാക്കാനും ഞാൻ വളരെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ആടുജീവിതം വായിച്ചപ്പോൾ സാർ അതിൽ എന്തുമാത്രം നല്ല ഒരു യഥാർത്ഥത്തിൽ നടന്ന കഥ സാർ അതിനെ വളരെ നല്ലവണ്ണം അതിനെ നരേറ്റ് ചെയ്തു കാണി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് അത് വായിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നടന്നപോ നടക്കുന്ന പോലെയാണ് നമുക്കത് തോന്നുക നമ്മളെ അത് വല്ലാണ്ട് നമ്മളെ അത് ഫീൽ ചെയ്യും അതുപോലെ നമുക്ക് ആ ഒരു ആ ഒരു വ്യക്തി അവിടെ അനുഭവിച്ചിട്ടുള്ള മരുഭൂമിയിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളത് അനുഭവിക്കുന്നതു പോലെ നമുക്ക് തോന്നും നമ്മളാ കഥ വായിക്കുന്ന സമയത്ത് അതുപോലെ തന്നെയീ ആടുജീവിതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പൃഥ്വിരാജ് പ്രധാന വേഷത്തിൽ വന്ന് വരുന്ന ഒരു സിനിമയായ ആടുജീവിതം ഇറങ്ങുന്നുണ്ട് അതുപോലെ ഇത് ബഷീർ സാറിൻ്റെ പല നോവലുകളും മതിലുകളാണെങ്കിൽ പോലും അതുപോലെ ഭാർഗവീനിലയത്തിനെ അടിസ്ഥാനമാക്കിയാണെങ്കിലും ഒരുപാട് സിനിമകൾ ഇതിനു മുന്നെയും നമ്മുടെ മലയാളം സിനിമകളിൽ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ന സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബഷീർ സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാർ ഒരു ഒരു മികച്ച എഴുത്തുകാരൻ തന്നെയാണ് അത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് സാറൊരു സാറൊരു മികച്ച എഴുത്തുകാരൻ തന്നെയാണെന്ന് സാറിൻ്റെ എഴുത്തിൽ എന്താണെന്ന് എന്താണ് നമുക്കത്രയും ഇഷ്ടമാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഹാസ്യ രൂപേണയാണ് കാര്യങ്ങൾ ഓരോന്നും കാണിച്ചു തരുന്നത് എന്നു വെച്ചാൽ ഇപ്പം നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ കാര്യങ്ങളും ഇപ് സമൂഹത്തിലുള്ള പ്രശ്നങ്ങളും ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും സങ്കടങ്ങളുമൊക്കെ ഒരു ഹാസ്യരൂപേണ അത്ര എളുപ്പത്തോടെയാണ് നമുക്ക് സാർ സാറിൻ്റെ നോവലിലൂടെ കാണിച്ചുതരുന്നത് നമുക്ക് വായിക്കുമ്പോളത് പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്കത് വായിച്ചിരിക്കാനുള്ളൊരു ഒരു ഒരു ഇഷ്ടം നമുക്ക് തോന്നും നമുക്ക് സാറിൻ്റെ നോവലുകൾ വായിക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സാ വൈക്കം മുഹമ്മദ് ബഷീർ സാറാണ് എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനെന്നു പറയാനും കഴിയുന്നത് സാറിൻ്റെ നോവലുകൾ എന്നെ അത്രമാത്രം ആസ്വാദി കനി കരിക്കുന്നുമുണ്ട്